ഹലോ ആ ജനേഷ് സൂപ്പർ മാർക്കറ്റാണ് ആരാണ് വിളിക്കുന്നത് എന്ത് സാധനമായിരുന്നു സാർ ആ സാർ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു സാർ അങ്ങോട്ടേയ്ക്ക് ആളെ വിട്ടിട്ടുണ്ടാവുമല്ലോ ഏത് കമ്പനീന്റെ ആയിരുന്നു വേൾപൂളാണോ ആ എവിടെയാണ് സ്ഥലം വന്നിട്ട് ആ എന്ന് അഡ്രസ്സ് പറയുമോ ഫുള്ളായിട്ട് ആ ഓക്കെ സാർ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ സാറിന് ഇന്നത്തെ വല്ല ഓഫേർസിന്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ എന്തെങ്കിലും വേണോ ആ സാർ വെയിറ്റ് നോക്കട്ടേ ആ ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചാം തീയ്യതി അടിച്ച സാധനമല്ലേ ആ പിന്നെ ആ ആ സാർ ഇരുപത്തഞ്ചാം തീയ്യതിയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണേ അതുകൊണ്ട് പറഞ്ഞതാണ് ആ അത് സെറ്റാക്കാനാരും വന്നിലായിരുന്നു ആ അവിടെ നിന്ന് ഓഫീസിൽ നിന്നാണ് വരിക ഞങ്ങളുടെ അടുത്തു നിന്നല്ല വരിക ആ വേൾപൂളിന്റെ ഓഫീസിൽ നിന്നാണ് വരിക ഞങ്ങൾ

ആ സാർ ഞങ്ങൾ അവരെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ ആ ഓക്കെ സാർ സാറിന്റെ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കസ്റ്റമർ കെയർ അവരുടെ കസ്റ്റമർ ആണല്ലോ ഞങ്ങൾ ആ സാർ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് സാർ ആ സാർ അവർ വരേണ്ടതാണ് കസ്റ്റമർ കെയറിൽ നിന്ന് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങോട്ട് സാറിനെ വിളിച്ചാൽ മതിയോ ആ ഓക്കെ സാർ ഞാനൊന്ന് മാനേജറോട് സംസാരിക്കട്ടെ എന്നിട്ട് സാറിനെ വിളിച്ചാൽ മതിയോ

ഒന്ന് ഹോൾഡ് ചെയ്യുമോ സാർ മാനേജർ എടുക്കുന്നില്ല ഒരു അനതർ കോളിലാണ് കാണിക്കുന്നത് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ